പാലക്കാട് നെന്മാറയിലെ നെൽവഴികളിലൂടെ പാടങ്ങളും പ്രകൃതിയും ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ നെല്ലിയാമ്പതി എന്ന മലനിരക്കിൽ നമുക്ക് എത്തിപ്പെടാം നെല്ലിയാമ്പതി എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ പോത്തുണ്ടി ഡാം സ്ഥിതീകരിക്കുന്നുണ്ട് അവിടെ പലതരം ആക്ടിവിറ്റീസുകൾ ഉണ്ട് റോക്ക് സൈക്ലിംഗ് അതേപോലെത്തന്നെ ഡാമിൻ്റെ താഴെ കുട്ടികൾക്കായുള്ള പാർക്ക് എന്നിവയൊക്കെ ഉണ്ട് പോത്തുണ്ടി ഡാം കണ്ടിരിക്കേണ്ട ഒന്നു തന്നെയാണ് നെല്ലിയാമ്പതി മല കയറുമ്പോൾ നമ്മൾ താഴെ നിന്നു തന്നെ പോത്തുണ്ടി ഡാമിൻ്റെ ഒരു കാഴ്ച് കാണാൻ കഴിയും എന്നാൽ നെല്ലിയാമ്പതി മല കയറുന്ന കയറിക്കൊണ്ടിരിക്കെ ഈ ഡാമിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം മലകൾ കയറുമ്പോൾ ഈ ഡാമിൻ്റെ വലുപ്പം ചെറുതായി ചെറുതായി വരും മലകൾ കയറി കഴിഞ്ഞാൽ ഉടൻ നമ്മൾക്ക് വളരെയധികം നല്ല കാഴ്ച്കൾ കാണാൻ കഴിയും നെല്ലിയാമ്പതി ഇതിനു മുൻപ് ഞാൻ പല തവണ പോയിട്ടുണ്ടെങ്കിലും ഈ തവണ എൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം പോയപ്പോഴാണ് എനിക്കൊരു ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം കാണാൻ കഴിഞ്ഞത് നെല്ലിയാമ്പതിയിലെ തൂക്കു പാലത്തിനപ്പുറത്ത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മലയുണ്ട് ആ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല കാഴ്ച് കാണാൻ കഴിയും അങ്ങനെ ഓരോ ഇടവഴികളിലൂടെയും ഞങ്ങൾ പോയി പോയി നോക്കി ഓരോ വഴികളിലൂടെയും പോകുമ്പോഴും നമുക്ക് വളരെ നല്ല കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ഈ വഴികളിലൂടെ പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ പോകേണ്ടതാണ് കാടിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ടും മലയുടെ മുകളിൽ ആയതുകൊണ്ടും പലതര വന്യ ജീവികളും വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ അധികം ജാഗ്രത പുലർത്തി വേണം പോകാൻ കൂടാതെ ഈ സ്ഥലങ്ങൾ അറിയാത്ത ഒരാളുടെ ഒപ്പം നമ്മൾ പോയാൽ ചിലപ്പോൾ വഴി അറിയാതെ പെട്ടുപോയെന്ന് ഇരിക്കാം അതുകൊണ്ട് തന്നെ വഴി അറിയുന്ന ഒരാളുടെ ഒപ്പം മാത്രം ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുക